ഇതര ചികിത്സ സംവിധാനങ്ങളായ ആയുർവേദം സിദ്ധ ഹോമിയോ പതി എന്നിവയെക്കുറിച്ചെല്ലാം ഞാനൊരുപാട് കേട്ടിട്ടുണ്ട് ഇതിൽ തന്നെ ആയുർവേദം ഹോമിയോപ്പതി എന്നിവയിൽ നിന്നും ഞാൻ ചിക്ത്സയൊക്കെ എടുത്തിട്ടുള്ളതാണ് ആശുപത്രികൾ സന്ദർശിക്കുന്നതിന് പകരം ഈ സംവിധാനങ്ങൾ ഞാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായും ചില ഒരുപാട് നാൾ നീണ്ട് നിൽക്കുന്ന ചികിത്സകൾക്കൊക്കെ ഞാൻ ആയുർവേദമൊക്കെയും താൽപ്പര്യപ്പെടുന്നുണ്ട് അതായത് സ്ഥിരം അലോപ്പതി മരുന്നുകൾ കഴിക്കുക എന്ന് പറയുന്നത് ഈ അലോപ്പതി മരുന്നുകൾ ഡ്രഗ്സ് കൂടെയാണ് അപ്പോൾ ഇപ്പോൾ കാലുവേദന മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നതിനേക്കാളും ഉഴിച്ചിലും ധാരയും അങ്ങനയൊക്കെയുള്ള ആയുർവേദ ചികിത്സാ രീതികൾ വളരെ സുഖം ഉള്ളതും അത് മാത്രമല്ല അകത്തേക്ക് നമ്മൾ ഇതുപോലെയുള്ള മരുന്നുകൾ കുറക്കാനും സഹായിക്കുന്നു അങ്ങനത്തെ മരുന്നുകളിൽ സ്റ്റീറോയിഡും കാരങ്ങളുമൊക്കെ അടങ്ങിയ ഹോർമോൺസും കാര്യങ്ങളും ഡ്രഗ്സുമൊക്കെ അടങ്ങിയിട്ടുള്ളതിനാലത് വളരെ നല്ലതല്ല അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വേദനകൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉഴിച്ചിലൊക്കെ തന്നെയാണെന്ന് നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് ആയുർവേദത്തിലെ കുറെ ചികിത്സാ രീതികൾ ഒരുപാട് സമയമെടുക്കുന്നതാണെങ്കിൽ പോലും അതുപകാരപ്രദമാണെന്ന് ഒരുപാട് പേർ പറയാറുണ്ട് എന്നാൽ ഏറ്റവും വേഗം തന്നെ അതിന് റിസൾട്ട് വേണ്ട രോഗങ്ങളാണെങ്കിൽ അലോപ്പതിയെ സമീപിക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോൾ വേഗം വേഗം ചികിത്സ തേടേണ്ട വേഗം വേഗം മാറ്റിയെടുക്കേണ്ട ചില കാര്യങ്ങളെ നമ്മൾ ആയുർ വേദത്തിലേക്കക്കെ കൊണ്ട് പോയി നമ്മൾ അത് അത് വേഗം മാറ്റാതെ കുറെ കാലമെടുത്ത് മാറ്റിയാൽ ചിലപ്പോളത് പ്രശ്നമാകും അപ്പോൾ രോഗത്തിനനുസരിച്ചാണ് ഏതൊരു ചികിത്സാ രീതി വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരേ രോഗത്തിന് തന്നെ ഒരേ സമയം അലോപ്പതിയും ആയുർവേദവും അങ്ങനെ സമീപിക്കാൻ പാടുള്ളതല്ല എന്നാണെൻ്റെ അറിവ് പിന്നെ ഹോമിയോപതി അത് എനിക്ക് ഇഷ്ടമുള്ളൊരു ചികിത്സാ രീതിയാണ് ഹോമിയോപതി ചില മരുന്നുകളുടെ വ്യത്യാസത്തിൽ മാത്രം ഈ നല്ല രസമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി ഞാനും എൻ്റെ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ഹോമിയോപ്പതിയെ സമീപിക്കാറുണ്ടായിരുന്നു അത് വേഗം മാറിപ്പോവുകയും ചെയ്തു വളരെ നല്ലൊരു രീതിയാണ് എന്നാൽ ഏറ്റവും വേഗതയിലും ഏറ്റോം കാര്യക്ഷമതയിലും കാര്യങ്ങൾ തീർക്കണമെങ്കിൽ അല്ലെങ്കിലൊരു ഒരു അപകടം പറ്റിയാലോ അല്ലെങ്കിലെന്തെങ്കിലും ഏറ്റവും ക്യാഷ്വലിറ്റിയായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമ്മൾ അലോപ്പതിയെയാണ് സമീപിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഇതിനെപ്പറ്റിയുള്ള അറിവും അതിൻ്റെ ചികിത്സാ മുറകളെല്ലാം നമ്മൾ അതിനനുസരിച്ച് നമ്മൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവാണം നമ്മളുടെ നമ്മളുടെ രോഗത്തിന് എങ്ങനെ പോയാലാണ് ഏറ്റോം നല്ല രീതിക്കുള്ള ശമനമുണ്ടാകുക നമ്മൾക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് പോലും കിട്ടാതെ എന്ന് ഉള്ളൊരു രീതിക്ക് ചിന്തിച്ച് ഏറ്റോം ഉചിതമായ ഡിസിഷനെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റോം വലിയ ഒരു കർത്തവ്യം